പണ്ടൊക്കെ എൻ്റെ കാലത്തൊക്കെ നമ്മൾ ഈ ഡിഷ് ടി വി വഴിയാണ് നമുക്ക് എല്ലാം ഈ ന്യൂസൊക്കെ അറിയാം ഇപ്പം ഈ ലോകത്തിൽ എന്താണ് നടക്കണത് എന്താ ചെ എന്തൊക്കെ നട മീൻസ് കുറെ പോളിറ്റീസും പിന്നെ സ്പോർട്സൊക്കെ ഇതിൽ നമ്മൾ അറിയണേൽ ഈ ടി വി വഴി ടെലിവിഷൻ വഴി അപ്പോൾ നമുക്ക് അത്രേം ഇൻഫോർമേഷൻസ് ചിലപ്പോൾ അത്ര വേഗത്തിൽ കിട്ടില്ല അപ്പന്നാ ചിലപ്പം നമ്മുടെ മൈൻഡ് അങ്ങനായിരിക്കും നമ്മുടെ ഭയങ്കര വറിയിങ്ങ് മൈൻഡായിരിക്കും അപ്പോൾ അപ്പോൾ നമ്മളീ കാലത്ത് നമ്മൾ ആ കാലത്തൊക്കെ നമ്മൾ കമ്പേർ ചെയ്താൽ നമുക്ക് ഇപ്പോൾ ഈ ഇൻറർനെറ്റൊണ്ട് പിന്നെ ഈ യൂട്യൂബ് ഫേസ്ബുക്ക് ആ ഈ ആപ്സിൽ വഴി നമുക്ക് വേഗം ഇൻഫോർമേഷൻ കിട്ടും ഈ ന്യൂസ് കിട്ടും എന്ത് നടക്കണെ ഇപ്പോൾ ഇപ്പം ഫുട്ബോൾ മാച്ച് കാണല്ലാത സ്കോർ എത്രയാണ് അങ്ങനൊക്കെ കുറെ ഇൻഫോർമേഷൻ കിട്ടും ഈ കാലത്തൊക്കെ ബിക്കോസ് ഇസ് എല്ലാം ഡെവലപ്ഡായി പിന്നെ ഈ ക നമ്മുടെ കഴിഞ്ഞ കാലത്തൊക്കെ ഈ നമ്മൾ ഈ ന്യൂസ് പേപ്പറും പിന്നെ പിന്നെ ഡിഷ് ടി വിയും അതൊക്കെയല്ലേ ഇപ്പം ഈ കാലത്ത് നമ്മൾ അത് കമ്പേർ ചെയ്താൽ ഭയങ്കര ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാം ഇപ്പോൾ കുറെ ഇൻഫോർമേഷന് നമ്മൾ ബേസ് നമുക്ക് കിട്ട് കിട്ടണ് ഇൻഫർമേഷൻ ഒക്കെ ഇതിൽ കിട്ടാം ഇപ്പം ഈ കുറെ ആപ്പ്സ് ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ പറഞ്ഞപോലെ യൂട്യൂബൊക്കെ ഈ ഇൻസ്റ്റാഗ്രാംസ്കളിലപ്പം അങ്ങനെ കുറെ ഇൻഫർമേഷൻ അങ്ങനെ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നല്ല ഇൻഫ്ലുവൻഷ്യലാവും പിന്നെ എല്ലാ നമ്മൾ എല്ലാ തിങ്സ് നമുക്ക് അറിയണ ഭയങ്കര എളുപ്പത്തിൽ കിട്ടും ഭയങ്കര ഈസിയാവും പിന്നെ നമുക്ക് അത്രയൊന്നും വറിയും ചെയ്യണ്ട എന്താ നടക്കണത് ഈ ലോകത്തുള്ള ബിക്കോസ് നമ്മൾ ഇപ്പം എല്ലാം നമുക്ക് അറിയേണ്ടേ നമ്മുടെ കണ്ണിൽ മുമ്പിൽ തന്നെയുണ്ട് നമ്മൾ ഇപ്പം കുറെ ഫോൺ യൂസ് ചെയ്യണ്ടെങ്കിൽ അപ്പം അതിൽ തന്നെ കുറെ ആർട്ടിക്കിൾസ് ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെക്കുറിച്ച് അത് എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ ഈ നോ ആ സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാവും ഇപ്പം ഇപ്പം ഒരു കാര്യം ക്വിക്കായിട്ട് അറിയണം എങ്കിൽ നമുക്ക് ഗൂഗിൾ ഗൂഗിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടു പിടിക്കാം കണ്ടോ അങ്ങനൊക്കെ നമുക്ക് ഒരു കാര്യത്തെ വെയ്റ്റിയും ചെയ്യണ്ട ഐ മീൻ ഇപ്പം ഈ ഇൻ്റർനെറ്റ് ഈ സോഷ്യൽ മീഡിയ കുറെ ഇത് കുറെ നല്ല കാര്യങ്ങളുണ്ട് കുറെ തെറ്റ് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ചിന്ത ഇവിടെ നല്ല കാര്യത്തിൽ ഒരു മൈൻഡ് സെറ്റ് വന്നു അപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് ഇതിൽ സ ഇൻറ്റർനെറ്റസ് യൂസ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ കുറെ ഇൻഫർമേഷൻസ് കുറെ ന്യൂസൊക്കെ നമുക്ക് ഇതിൽ തന്നെ എക്സ്പെക്ടെ ചെയ്യാനായിട്ട് പിന്നെ അല്ലെങ്കിൽ ഫിലിം സെലിബ്രിറ്റിയോ അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേവററ്റ് ഓൺടർപ്രിണറോ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് അപ്പം തന്നെ കിട്ടും ന്യൂസ് ഐ മീൻ ഈ സോഷ്യൽ മീഡിയേല് ഞാൻ പറഞ്ഞോലെ ഗൂഗിള് നമ്മൾ ത നമ്മൾ ഹ്യൂമൻസ് ഉണ്ടാക്കിയ ഗൂഗിൾ തന്നെ നമുക്ക് കുറെ ഇൻഫോർമേഷൻ കിട്ടും അത് നമ്മൾ സെർച്ച് ചെയ്താൽ ഒരു സ്നാപ്പ് ഫിഗ് സ്നാപ്പ് ഫിംഗറിൽ നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടും അങ്ങനത്തൊരു ഒരു ഡെവലപ്പ്മെൻറ്റ് ആപ്പാണ് ഗൂഗിൾ ഇൻഫർമേഷൻ ആപ്പാണ് ഗൂഗിൾ ഈ ഗൂഗിൾ തന്ന പറയുന്ന ഫയർ ഫോക്സും പിന്നെ ഇൻറ്റർ ബ്രൗസറും അതൊക്കെ അപ്പോൾ അപ്പം നമുക്ക് അല്ലെങ്കിൽ ന്യൂസ് നമുക്ക് അപ്പം തന്നെ കിട്ടുന്ന ഇൻഫർമേഷൻ അപ്പം തന്നെ കിട്ടുന്നു ജെസ്റ്റ് ഒന്ന് സേർച്ച് അവിടെ പോയിട്ട് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ കിട്ടും അങ്ങനത്തെ ഒരു അങ് അങ്ങനെയുള്ള ഈ ടെക്നോളജി നല്ല ഇൻഫ്ലുവൻഷ്യലാവും ഈ നമുക്ക് ന്യൂസ് സെക്ഷൻ നല്ല ഇൻഫു ഇൻഫ്ലുവേഷ്യനാവും നമുക്ക് അത് ഇപ്പം ഒരു എന്താ പറയാ വറി ചെയ്യേണ്ട ചെയ്യേണ്ട നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ല അറിയണ കാര്യങ്ങൾ ഗൂഗിള് അല്ലെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞത് പോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതൊക്കെ ആ ആപ്പ്സിലൊക്കെ നമുക്ക് കിട്ടും ജെസ്റ്റ് അവിടെ പോയിട്ട് ആ സേർച്ച് ബാർ പോയിട്ട് ടൈപ്പ് ചെയ്താൽ മതി അപ്പം തന്നെ ഈ ഇൻഫർമേഷൻസ് സ്റ്റാക്കായിട്ട് വരും കുറെ സ് കുറെ ഇൻഫർമേഷൻസ് വരും നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ യു നോ അപ്പോൾ ഇതന്നെ നമുക്ക് എക്സ്പെക്ട ചെയ്യാം ഈ ടെക്നോളജീൽ